ഞാനേ ചോദിച്ചത് എനിക്ക് ഇപ്പം ഒരു പുതിയ നിയമം വന്നിട്ടുണ്ടല്ലോ നമ്മൾ ആധാർ ബാങ്കുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പക്ഷേ എനിക്ക് അതിനെപ്പറ്റി യാതൊരു വിവരോം അറിയില്ല കാരണം നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനെ ഒന്നുമല്ലല്ലോ പഴയതല്ലേ അപ്പം അത് എന്തുവാ സംഭവം എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അത് എങ്ങനെയാണ് നമ്മൾ ബാങ്കിൽ നമ്മുടെ ആധാറും ഒക്കെ ആയിട്ട് കൊണ്ടുചെല്ലണോ എന്തൊക്കെ സ് ഡോക്യുമെൻറ്സ് ആണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാലേ നമുക്ക് അത് ഇനിയും മുൻപോട്ടുള്ള ഓരോ ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ എന്നൊക്കെ സർക്കാർ പറയുന്നത് സർക്കാരിൻ്റെ ഓരോരോ നിയമങ്ങളേ നമ്മളിപ്പം അതനുസരിച്ച് പോയല്ലേ പറ്റുള്ളൂ അപ്പം നമ്മളാണ് പോവാനായിട്ട് മനസ്സിലാവുന്നില്ല എന്തുവാണെന്ന് അപ്പം അതൊന്ന് എനിക്കൊന്ന് പറഞ്ഞ് തരാമോ എന്തൊക്കെക്കൊണ്ടാണ് നമ്മൾ ചെല്ലേണ്ടത് നമ്മൾ എവിടെയാണ് കൊണ്ട് അത് ആധാറുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കാരണം അറി അറിയില്ല നമ്മൾ അവിടെച്ചെന്ന് കഴിഞ്ഞൊന്നും ഒന്ന് അറിഞ്ഞിരുന്നിട്ട് പോവാമായിരുന്നെങ്കിലേ അവിടെച്ചെന്ന് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാതെ കാര്യം നടത്തിയിട്ട് പോരാമായിരുന്നു